ആ ചേട്ടാ ഇവിടെ നിന്ന് കാസർഗോഡിലേക്ക് എങ്ങനയാണ് പോവുകയെന്ന് വഴി ഒന്ന് പറഞ്ഞു തരുമോ അതെയല്ലേ ഇവിടെ നിന്ന് രാവിലെ അപ്പോൾ എത്ര മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുക ബസ്സ് അപ്പോൾ ലാസ്റ്റ് സ്റ്റോപ്പ് ഏതാണ് അതെയല്ലേ അതിൽ ഇടയിൽ നിർത്തുമോ ഡെയ്ലി ഈ റൂട്ടിലേക്ക് പോവാറുണ്ടോ അതെയല്ലേ ചേട്ടൻ കുറേ ആയോ അതിൽ അതെയല്ലേ ആ എങ്ങനെയാണ് അവിടുത്തെ സ്ഥലത്തിനെക്കുറിച്ചിട്ടൊക്കെ എന്താ പറയുക ഞങ്ങൾ കാസർഗോഡ് ഒരു വൺ ഡേ ട്രിപ്പിന് പോവാനായിരുന്നു അപ്പോൾ അവിടെ കറക്ട് ആയിട്ട് എങ്ങനെയാണ് അവിടെ സ്ഥലങ്ങളെക്കുറിച്ച് ഫേമസ് ആയിട്ടുള്ള പ്ലേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ പറ്റില്ലെ അത് അറിയാൻ ആയിരുന്നു ഓക്കെ ആ ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടൊരു പ്രോജക്ടിൻ്റെ ഭാഗമായിട്ട് അങ്ങോട്ട് പോവാൻ ആ താങ്ക് യൂ ചേട്ടാ